ബസ്സുകളുണ്ട് പോകുവാനാണെങ്കിലും അവർക്ക് പോയി വരാൻ ബസ്സുകളുണ്ട് ചിലവർ അടുത്തുനിന്നൊക്കെ വരുന്നവരൊക്കെയാണെന്ന് പറഞ്ഞാൽ അവർ നടന്നിട്ട് വരും ഇല്ലാത്തവരൊക്കെ ബസ്സിനു വരും എജുക്കേഷൻ എങ്ങനെയാണവർ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ബെറ്ററായിട്ട് തന്നെയാണ് കൊടുക്കുന്നത് ഡെയിലി ഫുഡ്ഡുകളുണ്ടാവും ഫുഡ് കൊടുക്കും പാല് മുട്ട അങ്ങനെയെല്ലാം കൊടുക്കാറുണ്ട് ഗവർമെൻ്റ് കോളേജിലൊക്കെ സ്കൂളുകളിലൊക്കെ അങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത് ആഴ്ചയിലൊരു ദിവസം അല്ലെങ്കിൽ അങ്ങനെ പിന്നെ അവർ മെയിനായിട്ട് നേരിടുന്ന വെല്ലുവിളി എന്താണെന്ന് ചോദിച്ചു പറഞ്ഞാൽ ചിലവിടെ ഓടിട്ട സ്കൂളായിരിക്കും ഉണ്ടായിരിക്കുക ചിലവിടെ ഈ വാർത്ത സ്കൂളുകളായിരിക്കും ഉണ്ടായിരിക്കുക ഓടിട്ടതെന്ന് പറഞ്ഞാൽ ഈ മഴക്കാലമായെന്നു പറഞ്ഞാൽ ഈ കമ്പിളിപ്പുഴു വന്ന് അവരുടെ മേലെ വരികയും ചൊറിയുകയുമൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് അത്രയുള്ള കുറച്ച് ബുദ്ധിമുട്ട് തന്നയെയുള്ളൂ അല്ലാത്തപക്ഷം ഗവൺമെൻ്റ് സ്കൂളിൽ പഠിക്കാൻ എല്ലാവരും പഠിപ്പിക്കുന്ന ആൾക്കാരും എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് ആ ഒരു എന്താ സ്ഥാപനം മുന്നോട്ടു കൊണ്ടു പോകുന്നത്